നമ്മുടെ ഇന്ത്യ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഇതിനാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം എല്ലാവരേയും സഹായിച്ചുകൊണ്ടും ഒക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോരാണ്ട് നമ്മുടെ ഇപ്പം ഒരു വല്ലാത്തൊരു ഇതാണ് അസുഖമാണ് കൊറോണ കൊറോണ വന്നതിൽപ്പിന്നെ പലർക്കും പല രോഗങ്ങളും ബാധിച്ച് ഒരിക്കലും എന്താ പറയുക ഇപ്പോൾ ഒരാൾക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ ആ കൊറോണ മാറുമ്പോഴത്തേക്കും അയാൾക്ക് ഇങ്ങനെ ശ്വാസംമുട്ട് നിലനിൽക്കുക അതുപോലെതന്നെ ഈ പ്രളയം വന്ന സമയത്ത് ഒരുപാട് നാശനഷ്ടം ഇതിനൊക്കെയുള്ള സാമ്പത്തിക ഇടപാടുകളും എല്ലാം കൊണ്ടും നമ്മുടെ ഇന്ത്യ ഇപ്പം പരമാവധി തളർന്നിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വച്ചാൽ പരമാവധി എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തും നമ്മളെ കൊണ്ടുപറ്റുന്ന സഹായം ചെയ്തുകൊടുത്തും നമ്മൾക്ക് പരമാവധി നമ്മുടെ ഇന്ത്യയെ തിരിച്ച് കൊണ്ടുവരാനല്ലാതെ വേറൊന്നിനും നമുക്ക് കഴിയുകയില്ല